നമുക്കാണെങ്കിൽ ഇപ്പോള് ഒരു അസുഖം ആയിട്ട് തൊണ്ടവേദന വരുകയാണെങ്കിൽ അത് നമ്മുടെ ഗ്രാമങ്ങളിൽ നിന്നും നമ്മുടെ നാട്ടിൽ നിന്നും കിട്ടുന്ന പച്ചമരുന്നുകള് ഇഷ്ടംപോലെയുണ്ട് അത് നമ്മുടെ നാട്ടിൽ നിന്നും മാത്രം അല്ല നമ്മുടെ വീടുകളിൽ നിന്നും നമുക്ക് ഉണ്ടാക്കാവുന്ന ഒത്തിരി പച്ചമരുന്നുകളുണ്ട് അതില് ഒന്നാണ് വെളുത്തുള്ളി ശർക്കരാന്ന് പറയുന്നത് വെളുത്തുള്ളിയും ശർക്കരകൊണ്ടും വെളുത്തുള്ളി കഴിച്ചാല്മതി തൊണ്ടവേദന ഇഞ്ചി ഈ നമുക്ക് തൊണ്ടയ്ക്കിപ്പോള് പനിക്കൂർക്ക പനിക്കൂർക്കയും കുരുമുളകും ചുക്കും എല്ലാംകൂടെ ഇട്ട് കാപ്പി തിളപ്പിച്ച് കുടിക്കാമെങ്കില് ഏറ്റവും കൂടുതല് നമ്മള് തൊണ്ടവേദന ജലദോഷം എന്നീ ഉള്ള അസുഖങ്ങളും മാറ്റിയെടുക്കാം നമുക്ക് കുഞ്ഞ് കൊച്ചുങ്ങൾക്കാണേലും കൂടുതല് തൊണ്ടവേദന കഫക്കെട്ടൊക്കെ വരുമ്പോഴത്തേക്കും നമ്മള് കൂടുതലും കൊടുക്കുന്ന സാധനം ആണ് പനിക്കൂർക്കയും ആടലോടകവും എല്ലാംകൂടെ വാട്ടി അതിന്റെ നീരെടുത്ത് പിഴിഞ്ഞ് കൊച്ചുങ്ങൾക്ക് ശർക്കര പാനി അല്ലെങ്കില് ആ ശർക്കരപ്പാനി അല്ലെങ്കില് പനക്കല്ക്കണ്ടവും പൊടിച്ചിട്ടുകൊടുത്ത് അതിങ്ങൾക്ക് കൊടുക്കുന്നത് നല്ലതാണ് അതുപോലെതന്നെ നമ്മുടെ വലിയവർക്കും ഇതൊക്കെത്തന്നെ തൊണ്ടവേദനയ്ക്ക് ഏറ്റവും കൂടുതല് നല്ലതാണ് പനിക്കൂർക്കയും ആടലോടകവും ഇതെല്ലാംകൂടെ ഇട്ട് നമുക്ക് കട്ടൻകാപ്പി കുടിക്കാം ചൂട് വെള്ളം ഒന്നും വേണ്ടെങ്കില് ഏറ്റവും നല്ലത് ഏറ്റവും ചൂട് ഇളം ചൂടുവെള്ളം കുടിക്കുന്നതും നല്ലതാണ്